ആ എനിക്കിഷ്ടപ്പെട്ടത് ടീ വീ ഷോയൊക്കെയാണ് എനിക്ക് കൂടുതലും ഏഷ്യാനെറ്റിലെ ഒരുപാട് സീരിയലൊക്കെ ഭയങ്കരിഷ്ടാണ് ഞാന് തിങ്കള് തൊട്ട് എല്ലാ ശനിവരെയും എല്ലാം സീരിയലുകൾ കാണാറുണ്ട് പിന്നെ അത്പോലെതന്നെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ സീരിയലുകളിലുള്ള ആൾകാരേയും പിന്നെ ഏഷ്യാനെറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ബിഗ്ബോസ്സ് ബിഗ്ബോസിലുള്ള ആൾകാരേം അങ്ങനെയുള്ള ആൾകാരേം കൂട്ടീട്ട് ഈ പാട്ടിൻറെ എനിക്ക് പാട്ട് പരിപാടികൾ ഭയങ്കരിഷ്ടമാണ് എന്തെന്നുവച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിൻറെ ഓരോ ഗെയിംകള് കളിക്കുന്നത് അങ്ങനെ കാണാൻ ഭയങ്കരിഷ്ടമാണ് പിന്നെ സീരിയലുകള് എല്ലാ സീരിയലുകളും ഞാൻ ഏഷ്യാനെറ്റിൽ കാണും പുതിയതായി വരുന്നതാണെങ്കിലും എല്ലാം ഞാൻ കാണും മുറ്റത്തെമുല്ല അതൊക്കെ പിന്നെ കാണാറുണ്ട് എനിക്ക് ഭയങ്കരിഷ്ടമാണ് ഇതൊക്കെ കാണാൻ പിന്നെന്നു വച്ചിട്ടുണ്ടെങ്കില് അതുപോലതന്നെ സ്റ്റാർസിംഗർ ഇപ്പൊ തുടങ്ങിയതാണ് സ്റ്റാർസിംഗർ അതിലെ ചിത്ര മാംമിനെയൊക്കെ ഭയങ്കരിഷ്ടമാണ് പിന്നെ ഒരുപാട് കുട്ടികള് നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട് പിന്നെ ആദ്യത്തേ കാലത്തെ കോമഡി സ്റ്റാർസ് എന്നൊരു പരിപാടിയുണ്ടായിരുന്നു അതൊക്കെ ഞാനെപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇപ്പതില്ല ഇപ്പം ഞാനത് നിർത്തിവച്ചേക്കിരിക്കയാണ് ഇപ്പം പിന്നെ സ്റ്റാർട്ട് മ്യൂസിക് ആണ് സ്റ്റാർട്ട് മ്യൂസിക് ആണ് എപ്പോളും കാണാറുണ്ട് പിന്നെ അതു പോലത്തന്നെ നമുക്ക് പറയണമെങ്കില് ബിഗ്ബോസ്സ് ബിഗ്ബോസ്സ് തുടങ്ങിയേൽ പിന്നെ ഞാൻ ഫസ്റ്റ് ടു ഹൺഡ്രഡ് ഡെയ്സ് ഞാന് കാണാതിരിക്കാറേയില്ല എനിക്കത്രയ്ക്കിഷ്ടമായിരുന്നു ആ പരിപാടി